ഞാന് ഒരു കമ്പനിയില് ഭാഷ വിവര്ത്തനം ചെയ്യുന്ന ആളായിട്ടാണ് ജോലി ചെയ്യുന്നത് ഭാഷ വിവര്ത്തനം എന്നാല് അതായത് ഇംഗ്ലീഷില് നിന്നും ഹിന്ദിയില് നിന്നും മലയാള ഭാഷയിലേക്ക് വിവര്ത്തനം ചെയ്യുന്നു വിവിധ മേഖലകളിലുള്ള പലതരം ആര്ട്ടിക്കിളുകള് അതുപോലെ തന്നെ പലതരം ഫയലുകള് അതായത് വിദ്യാഭ്യാസപരമായും ആരോഗ്യകരമായും ബന്ധപ്പെട്ട പല ഫയലുകളും ഇംഗ്ലീഷ് ഹിന്ദി എന്നി ഭാഷകളില് നിന്നും മലയാളത്തിലേക്ക് വിവര്ത്തനം ചെയ്യുന്നു ഞാന് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത ഒരു ജോലി തന്നെയാണ് ഇത് എന്തെന്നാല് നമ്മുടെ മലയാള ഭാഷ അതായത് ഏതൊരു വിദ്യാര്ത്ഥി ആയാലും സാധാ ഏതൊരു ആളായാലും ഇംഗ്ലീഷ് അല്ലെങ്കില് വേറെ ഏതൊരു ഭാഷയില് അവ വായിച്ച് മനസിലാക്കുന്നതിനെക്കാളും നല്ലത് കൂടുതല് മനസിലാക്കുവാന് അവര്ക്ക് എളുപ്പമായി തോന്നുന്നത് സ്വന്തം മാതൃഭാഷയില് അതായത് മലയാളത്തില് വായിച്ച് മനസിലാക്കുന്നതിനാ ആയിരിക്കണം അതുകൊണ്ട് അവര്ക്ക് എല്ലാം ഒരു ഉപകാരപ്രദമാകുന്ന രീതിയില് ഈ ഫയലുകളും പല ലേഖനങ്ങളും ഇംഗ്ലീഷില് നിന്നും മലയാളത്തിലേക്കും ഹിന്ദിയില് നിന്നും മലയാളത്തിലേക്കും വിവര്ത്തനം ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായി എനിക്ക് തോന്നുന്നു